രാഷ്ട്രീയത്തിലും ഭരണകൂടത്തെയും ക്ഷേമത്തെയും കുറിച്ചുള്ള വാർത്തകളിൽ ഏറേ താത്പര്യപ്പെടുന്നൊരാളാണ് ഞാൻ സമകാലിക വാർത്തകൾ ഞാൻ എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട് എന്നൊരു ചോദ്യത്തിന് എനിക്ക് ചോദിക്കാനുള്ളത് സമകാലിക പ്രസക്തിയുള്ള എ എന്ത് വാർത്തയാണ് ഇന്ന് മാധ്യമങ്ങൾ നമുക്ക് മുന്നിലോട്ട് വെച്ചുനീട്ടുന്നത് ഇന്ന് നമ്മൾ വാ കാണുന്ന വാർത്തകളെക്കുറിച്ച് ഏതൊരു വ്യക്തിയുടേയും അഭിപ്രായം എന്നു പറയുന്നത് തികച്ചും കേവലമായിട്ടുള്ള ടി ആർ പി റേറ്റിംങിനു വേണ്ടി വാർത്തകൾ പടച്ചുവിടുന്ന ഒരു മാധ്യമിക പ്രസ്ഥാനങ്ങളാണ് ഇന്ന് നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്തുള്ളത് രാഷ്ട്രീയപരമായിട്ടുള്ള വാർത്താചാനലുകൾ മാധ്യമക ചാനലുകൾ നമ്മുടെ മുന്നിൽ അരങ്ങു തകർക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടേതായ രാഷ്ട്രീയ പാർട്ടിയുടെ അവർക്കു വേണ്ടതായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളുടെ ഒരു ഭരണവാഴ്ച്ചയാണ് ഇന്ന് മാധ്യമങ്ങൾ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അനു രാഷ്ട്രീയ പാർട്ടിയെ അനുകൂലിക്കുന്ന ഒരു മാധ്യമ ചാനലാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്കെതിരേ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും എന്തുതന്നേ ആരോപണങ്ങൾ ഉന്നയിച്ചാലും ഈ ഒരു മാധ്യമ ചാനൽ അതിനേ തികച്ചും ന്യായീകരിക്കുകയും പിൻതള്ളുകയും അതിനേ വശീകരിച്ച് അതിനേ വളച്ചൊടിച്ച് മറ്റൊരുതരത്തിലേക്കാക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു അവസ്ഥാ വിശേഷമാണ് ഇന്ന് നമുക്കുമുന്നിലുള്ളത് ഭരണകൂടത്തെക്കുറിച്ചുള്ള ക്ഷേമത്തെയും കുറിച്ചുള്ള വാർത്തകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭരണകൂടത്തിനെതിരേ ഏതെങ്കിലും ഒരു വാർത്താ ചാനലുകൾ ഇന്ന് ശബ്ദിച്ചാൽ ആ വാർത്താചാനലുകൾ നാളെ രാജ്യദ്രോഹക്കുറ്റത്തിന് ഇരയാവുകയും ഇവിടെ നിന്ന് നാടുകടത്തപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയിലുള്ളത് ആ വാർത്താചാനലുകളിൽ ഇരുന്ന് വാർത്ത വായിക്കുന്ന ന്യൂസ് റീഡർ നമ്മളോട് ചോദിക്കുകയാണ് ഒരു ചർച്ചയിൽ നമ്മളോട് ചോദിക്കുകയാണ് ഇന്ന വ്യക്തിയെക്കുറിച്ച് നമ്മുടെ ഭ രാജ്യഭരണത്തിൻ്റെ ഉന്നതയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മളോടൊരു കാര്യം ചോദിച്ച് നമ്മളതിനു മറുപടികൊടുക്കുന്ന സമയത്ത് അതെന്തെങ്കിലും ആരോപണങ്ങളാണെങ്കിൽ ആ ഒരു ആരോപണത്തേ ആ ഒരു ആരോപണത്തേ വളച്ചൊടിച്ച് അത് അവർക്കെതിരെയുള്ള നമ്മുടെ ശക്തമായ നിലപാടാക്കി മാറ്റുകയും എന്നിട്ട് നാളേ നാം രാജ്യദ്രോഹക്കുറ്റവ കുറ്റവാളികളിൽ ഉൾപ്പെടുന്ന ഒരാവസ്ഥയാക്കുകയുമാണ് ഇന്നത്തേ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം എങ്കിലും ഒരു നാണയത്തിനു രണ്ടു വശങ്ങളുള്ളതുപോലേ എല്ലാറ്റിനും നന്മയും തിന്മയുമുണ്ട് എല്ലാ മാധ്യമ ചാനലുകളെക്കുറിച്ചും മാത്രമല്ലാ ഞാനീപ്പറയുന്നത് എന്നാൽ ഏറേ പ്രശസ്തമായ ചില സുതാര്യമായ കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ചില മാധ്യമങ്ങളേ ഞാൻ എടു ഇത്ര അടിച്ചാക്ഷേപിച്ചിട്ടുള്ളത്